തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സാങ്കേതിവിദ്യകളെ കുറിച്ചിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെന്നും ഉപയോഗിക്കുന്ന നമ്മളുടെ ജീവിതമെന്ന് പറയുന്നത് ഈ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മള് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാവിലെ കിടക്കുന്ന വരെയും നമ്മൾ ഈ ടെക്നോളജിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മള് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാ സാധനങ്ങളിലും നമുക്കിപ്പോൾ എന്താണ് കമ്പ്യൂട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ സാങ്കേതികവിദ്യകളൊക്കെ നമ്മളവിടെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കും നമുക്കതിനെ കുറിച്ച് ഉള്ള അറിവുണ്ടായിരിക്കണം എങ്ങനെയാണ് അത് ചെയ്യുക അല്ലെങ്കിൽ അതെന്തെങ്കിലും കുഴപ്പം വന്നുകഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇതൊക്കെ അറിയണം കാരണം നമ്മളുപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നാളെ അതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്ന് കഴിഞ്ഞാൽ അത് നമ്മള് ആദ്യം എന്താണ് കംപ്ലൈൻ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മള് പറ്റിക്കപ്പെടും നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ കൂടിയും നമ്മളൊരു എന്താണ് ഇലക്ട്രോണിക്കിൻ്റെ ഒരു മിക്സി വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറ് വാങ്ങുകയോ അല്ലെങ്കിലൊരു അടുപ്പ് വാങ്ങുകയോ എന്തെങ്കിലു ചെയ് സ്റ്റവ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമ്മള് കടയിൽ പോയിട്ട് അവരെന്തെങ്കിലും പറയും നമ്മള് കുറേ കാശും കൊടുത്ത് വാങ്ങിയിട്ട് വരുക അങ്ങനെയല്ലല്ലോ നമ്മൾക്ക് അതിനെ കുറിച്ച് അറിയണം അത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയണം അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞ് തരുമ്പോൾ നമ്മള് അത് മനസ്സിലാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം വാങ്ങണം അപ്പോൾ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റൂ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന പിള്ളേരുണ്ട് ഫോണിപ്പോൾ അതിലെന്താണ് നമ്മളുപയോഗിക്കുന്നത് നമ്മളത് എന്ത് ചെയ്താലാണ് നമുക്ക് നല്ലത് ആ ചീത്ത കാര്യങ്ങള് ചെയ്യാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എല്ലാവരും ആരൊക്കെ വെച്ച കുട്ടികളാണോയെന്ന് അറിയില്ല കുട്ടികള് മുതലേ നമുക്ക് അറിഞ്ഞിരിക്കണം എന്തായാലും നമുക്ക് നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽപ്പോലും എന്തു ചെയ്യാം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ വയസ്സായി എന്നു പറഞ്ഞിട്ട് എനിക്ക് അതുപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കരുത് നമ്മൾ അതൊക്കെ ഉപയോഗിക്കണം അതിലെന്താണ് നമുക്ക് നല്ല കാര്യത്തിനു വേണ്ടി നമ്മളത് ഉപയോഗിക്കണം ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം നമ്മളത് ചെയ്യാൻ